എടാ ഞാൻ വിളിച്ചതെ എനിക്ക് ഫോണ് നമ്പര് ഒന്നു ഞാൻ മാറ്റിയായിരുന്നു അപ്പോൾ ഡിജി ലോക്കറിന്റെ പഴയ ഫോണ് നമ്പർ മാറി അപ്പം അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുക വേണ്ടിയിട്ടായിരുന്നു അത് എങ്ങനെയാണ് പുതിയ ഫോണ് നമ്പര് അപ്ഡേറ്റ് ചെയ്യേണ്ടേ എന്നു അറിയുക വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടേ സെറ്റിങ്ങ്സിൽ പോയിട്ട് ഡിജി ലോക്കറിൻ്റെ ഓപ്പണ് ചെയ്തു എന്നിട്ട് അതിന്റെ അതിൽ ആ സെറ്റിങ്ങിൽ പോയിട്ട് മാറ്റുമല്ലേ ചെയ്യണേ അതിലേതാണ് ഓപ്ഷന്

ഇതാണോ എന്തുവാ ചേഞ്ച് ദി നമ്പര് ആ ഒരു സംഭാവമാണോ ഞാനതെടുത്തു ഓക്കെ ഓക്കെ കിട്ടി കിട്ടി കിട്ടി അപ്പോൾ താങ്ക് യൂ ഞാൻ ഇന്നലെ എടുത്തതെ ഉള്ളൂ പുതിയ നമ്പർ അപ്പം അതെങ്ങനെയാണ് മാറ്റേണ്ടതെന്നു എനിക്ക് അറിഞ്ഞു കൂടായിരുന്നു അതുകൊണ്ടാണ് വിളിച്ചത് ശരി താങ്ക് യൂ ബൈ ബൈ